ഹലോ പറഞ്ഞോളു ആ ഓക്കെ ഓക്കെ ഓക്കെ എത്രയാണ് നൂറ് പാക്കറ്റ് അല്ലേ അതിൻ്റ ഒപ്പം വേറെ എന്തെങ്കിലും ഓക്കെ ഓക്കെ ഓക്കെ ആ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പൈപ്പ് ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഹോൾസെയിൽ ഹോൾസെയിൽ ആയത് കൊണ്ട് തന്നെ വില കുറവായിരിക്കും അപ്പോൾ വില കുറവാണെന്ന് ഉണ്ടെങ്കിലും പക്ഷെ ക്വാളിറ്റിക്ക് യാതൊരു കുറവും ഇല്ല ആ ഉണ്ട് ആ അതെ അതെ അതെ ഏത് ലെവലിൽ ഇതുണ്ട് ചെറിയൊരു പൈസ കുറവേ ഉണ്ടാവുകയുള്ളു പൈസയുടെ വിലയുടെ ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷെ ഏതെടുത്താലും ആ ഒരു പൈസൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്

ആ അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ബക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്ത് ബക്കറ്റ് പല ടൈപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ ആ ആ ഓക്കെ ഓക്കെ ആ ഒരു ആ ഒരു അതിൻ്റെ ഈ ഇത് പൈപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവരാനായി നിങ്ങൾ ഒരു നൂറ് എണ്ണമൊക്കെ നൂറ് എണ്ണമൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ ഇവിടെ സാധനം സ്റ്റോക്ക് വേണമല്ലോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഏകദേശം ഇപ്പം ഹോൾസെലിന് ആയത് കൊണ്ട് ക ഒരു ബക്കറ്റിൻ്റെ വില വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് നാൽപ്പത്തി അഞ്ച് രൂപ പിന്നെ കോപ്പക്ക് ഇരുപത് രൂപ പിന്നെ അതുപോലെ നിങ്ങൾ പൈപ്പ് പൈപ്പ് ഇപ്പം പലവിധം പൈപ്പ് ഉണ്ട് അല്ലേ കൂളി ഏ എങ്ങനെ

ഇരുപത് ഓക്കെ അപ്പോൾ എന്നാൽ ഇപ്പോൾ കട വരുന്നത് എവിടെ എന്ന് വെച്ചാൽ മലപ്പുറത്താണ് മലപ്പുറം ഇവിടെ നമ്മൾ ഈ മുണ്ടമ്പ്ര അറിയുമോ നിങ്ങൾക്ക് മലപ്പുറം മുണ്ടമ്പ്ര അവിടെ ആ അതെ അതെ അതെ കേരള കോളേജിൻ്റെ അവിടെ അപ്പോൾ മലപ്പുറം കോളേജിൻ്റെ അവിടെ ആണ് ഉള്ളത്

ആ ഓക്കെ അപ്പം കുറച്ച് ഉള്ളല്ലേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഓക്കെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് നമ്മൾ ഇവിടെ വരികയാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കാണിച്ച് താൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കൊണ്ടുപോകാം ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക്യൂ വിളിച്ചതിന് നന്ദി